കോമിക്കുകൾ വായിക്കാറുണ്ട് കോമിക്കുകളില് പ്രധാനമായിട്ട് പ്രിയ കഥാപാത്രം കൊമിക് കഥാപാത്രമെന്ന് പറയുന്നത് കുറെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ബോബനും മോളിയും മായാവി ലുട്ടാപ്പിയും പിന്നെ ജെമ്പനും തുമ്പനും അങ്ങനെയൊക്കെ ഉള്ള ബാലരമയിലൊക്കെ വരുന്ന കോമിക്ക് കഥകള് വായിക്കാനായിട്ട് ഇഷ്ടവാണ് വായിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമെന്ന് പറയുന്നത് ബോബനും മോളിയുവാണ് ബോബനും മോളിയും എഴുതിയ ആള് മരിച്ച് പോയി അതു കാരണം ഇപ്പം ഇല്ല എൻ്റെ ഒക്കെ ചെറുപ്പത്തില് മറ്റെ ബാലരമയില് പത്രത്തിലെ പെ പത്രത്തിലൊക്കെ ഇങ്ങനെ വരുവായിരുന്നു കഥകള് അതൊക്കെ വായിക്കാൻ എനിക്കിഷ്ടവായിരുന്നു അതില് ഏറ്റവും ഇഷ്ടം ഉള്ള കഥാപാത്രവാണ് ബോബനും മോളിയും പിന്നെ മായാവി ലുട്ടാപ്പി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുവാണെന്ന് വെച്ചാൽ കുഞ്ഞിലെ കുഞ്ഞിലെ വായിച്ചൊര് ഇഷ്ടം മനസ്സിൽ കയറിയതാണ് പിന്നെ കുഞ്ഞിലെ വായിച്ച ഇഷ്ടം കയറിയതാണ് മായാവി ലുട്ടാപ്പി പിന്നേ ബോബനും മോളീയും പിന്നെ ഇപ്പം ഇപ്പം ഇപ്പം എന്ന് പറയുന്ന ഇപ്പം ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അനിമേ കഥാപാത്രങ്ങള് പക്ഷേ ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഇപ്പം ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അനിമെ വായിക്കുന്നത് നല്ലതാണ് കൊമിക്കാണ് കോമഡിയാണ് അതൊക്കെ ഇങ്ങനെ പല ഭാഷകളിൽ ഇങ്ങനെ ജാപ്പനീസാണ് പക്ഷേ അതിങ്ങനെ പല രൂപത്തിലിങ്ങനെ നമ്മുടെ മുമ്പില് അവതരിപ്പിക്കുന്നുണ്ട് കുറെ പേര് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് വായിക്കണമമെന്ന് ആഗ്രഹമുള്ളതാണ് പക്ഷേ പക്ഷേ ഇതുവരെ വായിച്ചിട്ടില്ല ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഇഷ് പ്രധാനമായിട്ടും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ബോബനും മോളിയും മായാവി ലുട്ടാപ്പി അങ്ങനെ ഉള്ള കഥാപാത്രങ്ങളാണ് കുഞ്ഞിലെ വായിച്ച് മനസ്സിലോട്ടൊരു ഇഷ്ടം കയറിയതാണ് നമുക്ക് ആനന്ദകരമായിട്ട് തരുന്ന നമ്മള് കൂടുതലായിട്ട് നമുക്ക് ഒരു ഇഷ്ടവും സ് ഒക്കെ തരുന്ന കഥാപാത്രങ്ങളാണ് മനസ്സിനൊര് ആനന്ദവും ഒരു എന്താ ഒരു റിലീഫ് ഒരു റിലാ റിലാക്സേഷനൊക്കെ തരുന്ന ഒരു കൊമിക് കഥ കഥകളാണിത് അത്കൊണ്ട്തന്നെ അത് വായിക്കാൻ ഞാനൊരു പ്രിയമാണ് ഇപ്പഴും അത് കിട്ടിയാൽ വായിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരിതാണ് അത്കൊണ്ട്തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഇതാണ് ബോബനും മോളീ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് പിള്ളേരുടെ ഒക്കെ മനസ്സില് ഒരുപാട് ഇടം കയറിയിട്ടുള്ള ഇതാണ് ഇപ്പം അതൊന്നും ഇല്ലെങ്കില് പണ്ടൊക്കെ അത് വായിക്കാനും ഒക്കെ കൂടുതല് ഇഷ്ടമായിരുന്നു അങ്ങനെ ഒക്കെ ഉള്ള ഇതാണുള്ളത്